ആ വരൂ ഇരിക്കൂ അതെ ഓക്കെ ഏതൊക്കെ സ്റ്റാൻഡേർഡിലേക്കാണ് ഓക്കെ അപ്പോൾ എൽ കെ ജി പഠിക്കുന്ന കുട്ടിക്കിപ്പോൾ എത്ര വയസ്സായി എത്രയാണ് എത്ര വയസ്സായി നാല് നാലുകഴിഞ്ഞോ അതോ അഞ്ചുവയസ്സാകും ഓക്കെ എന്നാൽ അതെ ആ അഞ്ചുവയസാകുമ്പോഴേ ശരിക്കും ചേർക്കാൻ പാടുള്ളു എന്നാണേൽ വേറെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പോൾ അങ്ങനെ ചോദിച്ചതാണ് വേറൊന്നുമില്ല ഓക്കെ ആ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇപ്പോൾ എവിടെയാണ് പഠിച്ചിട്ടുണ്ടാരുന്നത് മുമ്പ് അതെ അല്ലെ ആളെങ്ങനെയാണ് പഠിക്കാനൊക്കെ വാശിയുണ്ടോ

ഓക്കേ ഓക്കെ ആ ആ ആ ആ ഓക്കെ ഓക്കെ രണ്ടാള് അപ്പോൾ ശരി ഓക്കെ അവർക്ക് നമ്മളിപ്പോൾ ഫീസും കാര്യങ്ങളൊക്കെ വന്നിട്ട് എൽകെജിക്ക് ഡൊണേഷൻ നമ്മള് ആയിരത്തിഎണ്ണൂറുരൂപയാണ് ഡൊണേഷൻ മേടിക്കുന്നത് പിന്നെ കോഷൻ ഡെപ്പോ മാസം ഫീസ് വന്നിട്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് ആ അവർക്ക് രാവിലെത്തൊട്ട് രാവിലെ ഓ എട്ടര ഒൻപതുമണിതൊട്ട് പന്ത്രണ്ടുമണിവരെയാണ് ക്ലാസ് വരുന്നത് എൽകെജിക്കാർക്ക് അപ്പോൾ അതുകഴിഞ്ഞാൽ അവർക്ക് വീട്ടിപ്പോകാം ഇപ്പോൾ നിങ്ങൾക്ക് നമ്മടെ സ്കൂൾബസ്സുണ്ട് സ്കൂൾബസ്സുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് കൂട്ടിയിട്ട് പോകണമെങ്കിൽ കൂട്ടിയിട്ട് പോകാം മറ്റേ ബുക്ക്സ് അവർക്കത്ര എൽകെജിക്കാർക്ക് അത്ര ബുക്ക്സും കാര്യങ്ങളുമൊന്നുമില്ലല്ലോ ഒന്നോ രണ്ടോ ബുക്ക്സെ ഉള്ളൂ അതൊക്കെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാം അതിനിപ്പോൾ നമുക്കത്ര വേലയും കാര്യങ്ങളും ഒന്നും അത്രയധികം വരുവൊന്നുമില്ല രണ്ടാംക്ലാസ്സുകാരുടെ അവർക്ക് രാവിലെ ഒൻപതുമണിമുതൽ മൂന്നരവരെയാണ് ക്ലാസ് വരുന്നത് അപ്പോൾ ആൾക്ക് സ്കൂൾബസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് എത്രയാണ് അതിൻ്റെ കിലോമീറ്റർ പത്തുകിലോമീറ്ററിനുള്ളിലാ ണെങ്കിൽ മിനിമം മുന്നൂറുരൂപയാണ് അതിൻ്റെ മേലെക്കാവുമ്പോൾ നമ്മള് കിലോമീറ്ററിന് എക്സ്ട്രാ പൈസ തരേണ്ടിവരും നമ്മള് അല്ല അവിടെച്ചെന്നു അവിടെ എത്ര കിലോമീറ്ററാണെന്നു നോക്കിയിട്ട് അവര് പറയും ഓക്കെ ആ അതിപ്പോൾ അവരോട് കറക്റ്റ് ആയിട്ടവര് ഓഫീസിൽ ചെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അവര് പറഞ്ഞുതരും ആൾക്കുള്ള യൂണിഫോമും ബുക്ക്സും നമ്മുടെ സ്റ്റോറിലുണ്ട് അപ്പോൾ അതിൻ്റെ മെഷർമെൻറും കാര്യങ്ങളും കൊടുത്തുകഴിഞ്ഞാൽ അവരിവിടുന്നുതന്നെ തയ്പ്പിച്ചുതരും രണ്ടു സെറ്റ് യൂണിഫോം തയ്പ്പിച്ചുതരും പിന്നെ ബുക്ക്സെന്നുപറയണത് ഇപ്പോൾ രണ്ട് എന്തായാലും ഇപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ ക്ലാസ് തുറക്കുകയുള്ളു അപ്പോൾ ക്ലാസ് തുറക്കണേനു രണ്ടുദിവസം മുൻപ് വന്നിട്ട് അവരുടെ ടെക്സ്റ്റ്ബുക്കും നോട്ടുബുക്കും മേടിച്ചിട്ടുപോകാം വേറെന്തെങ്കിലും അറിയണമെന്നുണ്ടോ ഇല്ല കോഷൻ എക്സ്ട്രാ ഫീസായിട്ടില്ല കോഷൻ ഡെപ്പോസിറ്റ് വരുന്നുണ്ട് അത് ഫസ്റ്റ് മന്ത്ലി ഒന്നുമല്ല അത് ഫസ്റ്റ് നമ്മൾ ചേരുമ്പോൾ തന്നെ കെട്ടിയാൽ മതി ഒരുകൊല്ലത്തേക്കുള്ള ഫീസാണത് അതുവന്നിട്ട് ആയിരം രൂപയാണ് അത് നിങ്ങൾക്ക് നമ്മുടെ ഇക്കൊല്ലം കഴിയാറാകുമ്പോൾ അഥവാ നിങ്ങൾക്ക് അടുത്തകൊല്ലം മാറ്റണമെന്നു പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പോണസമയത്ത് ആ പൈസ തിരിച്ചുമേടിച്ചിട്ട് പോകാം അല്ല ഇവിടെത്തന്നെ കണ്ടിന്യു ചെയ്യണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതടുത്ത കൊല്ലത്തേക്ക് റീഫണ്ട് ആയിക്കോളും ആനിവേഴ്സറി സമയത്തു ചിലപ്പം അവരുടെ ഡ്രെസ്സിനും കാര്യങ്ങളൊക്കെ എന്തിനും ഫീസെന്നല്ലാണ്ട് വേറെ നമ്മൾ എക്സ്ട്രാ പൈസയൊന്നും അതിനു മേടിക്കുന്നില്ല ഇല്ല ഇല്ല ഇല്ലില്ല ഇല്ല അതിനു അവർക്കിപ്പോൾ അവര് പങ്കെടുക്കണസമയത്ത് അവർക്കെന്തെങ്കിലും സാധനങ്ങളിപ്പോൾ ആവശ്യം വരുവാണ് അങ്ങനെന്തെങ്കിലും ആണെങ്കിൽ അവരുടെ പേർസണൽ ആവശ്യങ്ങൾക്കു വേണ്ടീട്ടുള്ള ഡ്രെസ്സൊ കാര്യങ്ങളോ അങ്ങനെന്തെങ്കിലും വരുമ്പോൾ മാത്രമേ പൈസ മേടിക്കുള്ളൂ അല്ലാതൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പൈസയൊന്നും ആവശ്യം വരില്ല ആ പിന്നെ ഈ സ്കൂൾ ടൂർ പോകുമ്പോഴൊക്കെ അവരുടെതായ പൈസ വേണ്ടിവരും അതൊന്നും മാനേജ്മെൻ്റ് ചെയ്യുന്നതല്ല അതൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് ആ വേറെന്തെങ്കിലും അറിയാനുണ്ടോ അത് റൂട്ടവരുടടുത്ത് പറഞ്ഞുകൊടുത്തുകഴിഞ്ഞാൽ ഓഫിസിൽ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സമയം ഇപ്പോൾ ബുക്ക്സ് മേടിക്കാൻ വരുന്ന സമയത്തെ അതൊന്നുംകൂടൊന്നു കൺഫേം ആക്കിയിട്ട് പോയാൽ മതി അവരോട് റൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തുകഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മുടെ റൂട്ട് ബസ്സും കാര്യങ്ങളൊക്കെ ഏതാണ് ബസ് നമ്പർ പറഞ്ഞുതരും നിങ്ങളുടെ ഡ്രൈവറിൻറെ നമ്പർ നിങ്ങൾക്ക് തരും അപ്പോൾ കൃത്യസമയം അതൊക്കെ പറഞ്ഞുതരും അവിടെ ഓക്കെ അതുപോലെ നിങ്ങളുടെ നമ്പറും അവിടെ എഴുതിക്കൊടുക്കണം വിളിച്ചാൽ രാവിലെ ഇപ്പോൾ അവര് ലേറ്റ് ആകുവാണെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചുപറയാം അഥവാ ബസ് വന്നുനിന്നിട്ട് വിളിക്കാൻ പറ്റിയ നമ്പർ അവിടെ എഴുതിക്കൊടുക്കണം അവിടെ അവിടെ നമ്മള് ബസ് മാക്സിമം മൂന്നു മിനിറ്റ് നാലുമിനിറ്റ് വെയിറ്റ് ചെയ്യുവോള്ളൂ അതിൽ കൂടുതൽ നമ്മൾ ബസ് എവിടേയും വെയിറ്റ് ചെയ്യില്ല കാരണം കറക്റ്റ് ടൈമിന് അതായത് സ്കൂൾ തുറക്കുന്നതിന് ഒരു പത്തുമിനിറ്റ് മുൻപ് നമ്മുടെ ബസ്സെല്ലാം സ്കൂളിലെത്തണം എന്നുള്ള നിയമമുണ്ട് അപ്പോൾ മാക്സിമം മൂന്നുമിനിറ്റൊക്കെയേ നമ്മൾ വെയിറ്റ് ചെയ്യൂ അവിടെ അപ്പോൾ ആ കറക്റ്റ് സ്ഥലവും കാര്യങ്ങളുമൊക്കെ ഒന്ന് പറഞ്ഞുകൊടുത്തിട്ട് പോയാൽ മതി ഇപ്പോൾ എൽ കെ ജി പഠിക്കുന്ന ആൾക്ക് അവർക്കുവേണ്ടീട്ട് നമ്മള് സ്പെഷ്യൽ ആയിട്ട് ഉച്ചക്ക് ബസ്സ് വിടുന്നുണ്ട് എൽ കെ ജി യു കെ ജിക്ക് അതിന് അല്ല രാവിലെ എല്ലാവർക്കും ഒരു ബസ്സ് കോമൺ ബസ്സായിരിക്കും തിരിച്ചുവരുമ്പോൾ മാത്രം അവർക്കുള്ള ബസ് അവർക്ക് ഒരു ട്രിപ്പ് എക്സ്ട്രാ അടിക്കുമെന്ന് മാത്രം ഓക്കെ ബാക്കി കാര്യങ്ങളൊക്കെ അക്കൗണ്ട്സിൻറെ സെക്ഷനിൽ പോയിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും അവിടെ ഫീസും കാര്യങ്ങളുമൊക്കെ അടച്ചുകഴിഞ്ഞാൽ അതുപോലെ ഇപ്പോൾ യൂണിഫോമിൻറെ മെഷർമെൻറും കൊടുക്കുക അവർ നിങ്ങൾക്ക് ബുക്ക്സ് മേടിക്കാൻ വരുമ്പോൾ ഡ്രെസ്സും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും

ഓക്കെ എന്നാൽ താങ്ക്യൂ താങ്ക്യൂ